ഞാൻ ലോങ്ങ് ട്രിപ്പിന് പോകുമ്പോൾ മെയിനായിട്ട് കരുതാറുള്ളത് സ്ക്രൂ ഡ്രൈവറുകൾ സ്പാന്നറുകൾ എഞ്ചിൻ ഓയിലുകൾ ഇതാണ് മെയിനായിട്ട് ഞാൻ ദൂരയാത്ര ബൈക്കിൽ പോകുമ്പോൾ ഞാൻ കൊണ്ടുപോകാറുള്ളത് കാരണമെന്ന് വച്ചാൽ ദൂരെ യാത്രയിൽ പോകുമ്പോൾ നോർത്തൻ സ്റ്റേറ്റിലെ ചില കുഗ്രാമങ്ങളിൽ എഞ്ചിനോയിലുകളൊന്നും കിട്ടാറില്ല പിന്നെ ടയറിൻ്റെ ട്യൂബുകൾ ഞാൻ കൊണ്ടുപോകും ഇടയ്ക്കിടയ്ക്ക് ടയറ് പഞ്ചറാവാൻ സാധ്യതയുണ്ട് പഞ്ചറൊട്ടിക്കുവാനുള്ള കിറ്റുകൾ ഞാൻ കൊണ്ടുപോകാറുണ്ട് ഈ സംഭവങ്ങളില്ലാതെ പോയാൽ ഉറപ്പായിട്ടും പണി കിട്ടുമെന്ന് എനിക്കറിയാം ഈ സാധനങ്ങളൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ബൈക്ക് യാത്രയിൽ എൻ്റെ കൂടെ എൻ്റെ കൂടെ എൻ്റെ ബാഗിലുണ്ടാവാറുള്ള സാധനങ്ങളിതൊക്കെയാണ് എൻ്റെ ബൈക്കിന് ചില സമയത്ത് ഒരു ചില തകരാറുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് കാശ്മീർ പോണ വഴിക്ക് ഹിമാചലിലൊക്കെ എത്തണ സമയത്ത് അവിടെ തണുപ്പടിച്ച് വണ്ടി ഓഫായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് ഈ സംഭവങ്ങൾ കൊണ്ടുപോയപ്പോൾ എനിക്ക് യൂസ് ഫുള്ളായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബൈക്ക് യാത്രയിൽ ഞാൻ കൊണ്ടുപോകാറുള്ള സാമഗ്രികളും എൻ്റെ അനുഭവങ്ങളൊക്കെ ഞാൻ ഇവിടെ പങ്കു വെക്കുന്നത്